പത്തൊൻപത് പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപത് പതിനഞ്ച് നാല് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത്തി നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത് പതിനാറ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്ന്